ആദ്യമായിട്ട് നമ്മള് എല്ലാ കാര്യത്തിനും മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കാൻ ശ്രമിക്കുക അതായത് എന്തിനും ഏതിനും ഒരാളെ തന്നെ ഡിപെൻഡ് ചെയ്ത് നമ്മളുടെ ഇഷ്ടങ്ങളും എല്ലാ ഇതും അവരോട് തന്നെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവര് അവര് തന്നെ ചെയ്യണം എന്ന ഒരു രീതിയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുക നമുക്ക് നമ്മളാൽ കഴിയുന്ന കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാന് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം നമ്മള് ഫ്രീ ടൈമില് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടങ്കില് ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാന് ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങള് മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും ഇൻകേസ് നമുക്കൊരു ഹൗസ് വൈഫ് ആണെങ്കില് എല്ലാ ഇതും രാവിലെ മുതൽ രാത്രി വരെയും വീട്ടിലുള്ള കാര്യങ്ങളും വീട്ട് ജോലികളും മക്കളുടെ കാര്യങ്ങളും അതെപോലെ ഹസ്ബൻറ്റിന്റെ കാര്യങ്ങള് അങ്ങനെ ഫുൾ ടൈം ഫാമിലിക്ക് മാത്രം ആയിട്ട് നമ്മള് ഒതുങ്ങി കൂടാതെ നമ്മളാൽ കഴിയുന്ന ഫ്രീ ടൈമില് നമുക്ക് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊരു വർക്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അത് ചെയ്ത് നമുക്കൊരു വരുമാനം ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ ഉള്ള ഒരു പ്രാപ്തിയാവുക എന്നൊരു കാര്യം ചെയ്യാ ചെയ്താല് നല്ലതാണ് അതേപോലെ നമ്മള് ഒന്നും പ്രതീക്ഷിച്ചിട്ട് ആരെയും സ്നേഹിക്കാതിരിക്കുക എല്ലാം അവരുടെ അടുത്ത് നിന്ന് സ്നേഹം കിട്ടും അവിടുന്ന് ഇഷ്ടം കിട്ടും ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കുക പിന്നേ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തില് നമ്മള് കൂടുതല് അന്വേഷിക്കാതിരിക്കുക അതായത് നമ്മളങ്ങനെ കൂടുതല് അവരിലേക്ക് എത്തി നോക്കുമ്പോൾ നമ്മള് പലപ്പോഴും തനിച്ചാവുന്നത് പോലെ തോന്നും അപ്പം മാക്സിമമം നമ്മള് നമ്മളിൽ തന്നെ സ്വയം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക പിന്നെ അതേപോലെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പം നമുക്ക് നമ്മളുടെ ലൈഫ് ഹാപ്പിയായിട്ട് മുന്നോട്ട് കൊണ്ട് പോകാൻ സാധിക്കും പിന്നെ കൂടുതലായിട്ടും ഒരാളെ അഡിക്റ്റായി ജീവിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഉള്ള ഒരു പ്രാപ്തിയാവുക എന്നത് തന്നെയാണ് മെയിനായിട്ട് പ്രധാനമായിട്ട് നമുക്ക് ഒരാൾക്ക് വേണ്ടത്